എന്തുപറ്റി തണുത്തത് എന്തെങ്കിലും കഴിച്ചോ ആണോ മഴ നനയുകയോ അങ്ങനെ എന്തെങ്കിലും

പുറത്തേക്ക് ദൂരേക്ക് എവിടെങ്കിലും ജില്ല മാറുകയോ അല്ലെങ്കിൽ ടൗൺ ഏരിയിലേക്കോ വല്ല കൂട്ടം കൂടി നിൽക്കുന്ന ഇടയിലേക്കെങ്ങാനും പോയിരുന്നോ

എന്തായാലും ഇപ്പോൾ ഒന്ന് ക്വാറൻറ്റെനിൽ പോകുക വീട്ടില് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ ആണോ എന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നോളൂ കെട്ടോ എന്തായാലും ക്വാറൻറ്റെനിൽ പൊയ്ക്കോ പിന്നെ കൊറോണ ടെസ്റ്റ് ഒന്ന് നടത്തണം കെട്ടോ അ ഇപ്പോൾ കൊറോണ കൂടി വരുന്നു ഇപ്പോഴത്തെ ഇതില് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നോളൂ ഇപ്പം കൊറോണ ഹോസ്പിറ്റലില് ഓരോ പേഷ്യൻസ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് സെൻറ്റേഴ്സ് കൊറോണ സെൻറ്റേഴ്സ് നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ചെന്നാൽ മതി അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ വേറെ ആരുമായിട്ടും അധികം ഇടപെടാൻ നിൽക്കരുത് കെട്ടോ കൊറോണ കൂടി വരുന്ന സാഹചര്യം ആണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ആവി പിടിച്ചോളൂ കെട്ടോ

അ അപ്പോൾ അത് ഈ കൊറോണൻ്റെ തന്നെ ആയിരിക്കും ഇടയ്ക്കിടെ മൂക്കിലും കണ്ണിലും ഒന്നും തൊടാതെ ഇരിക്കുക കെട്ടോ നന്നായി ഭക്ഷണം കഴിക്കണം ടെൻഷൻ ആവരുത് ഇടയ്ക്ക് ഇടയ്ക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യുക ഇടയ്ക്ക് ഇടയ്ക്ക് നന്നായി വെള്ളം കുടിക്കുക സാനി നന്നായിട്ട് മഞ്ഞൾ തുളസി അങ്ങനത്തെ സാധനം ഒക്കെ ഇട്ട് വെള്ളം കുടിക്കുക പുറത്ത് ആൾക്കാരുമായിട്ട് അധികം സമ്പർക്കത്തിന് പോകണ്ട എന്തായാലും നമ്മളായിട്ട് ഒരു മുൻകരുതൽ എടുക്കുക ആ പേടിക്കണ്ട കെട്ടോ വേണ്ട വേണ്ട വല്ലാണ്ട് പനി കൂടുകയാണെങ്കിൽ മാത്രം ഒരു പാരസെറ്റമോൾ കഴിക്കാം കെട്ടോ അ അധികം ആകാൻ നിൽക്കരുത് പനി വല്ലാണ്ട് കൂടുതൽ ആണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകുക കെട്ടോ അ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്ക്